പണമില്ലാത്തവർക്ക് വൈദ്യസഹായം കിട്ടുന്നില്ലാ എന്ന കാഴ്ചപ്പാട് ആ ഉണ്ട് ഇല്ലയെന്നില്ല ഉണ്ട് നമ്മളൊരു മെഡിക്ക പിന്നെ മെഡിക്കൽ കോളേജിൽ പോകണ്ട കുഴപ്പമില്ല നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ അർജൻറ്റായി കയറിച്ചെന്നെന്ന് വെച്ചോ നമുക്ക് പൈസയില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല അവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പൈസ വേണം എന്ത് കാര്യത്തിനും എങ്ങനെയൊന്നും ഒന്നും പൈസ ഇല്ല നമ്മൾ ഗ്രാമപ്രദേശങ്ങൾക്ക് വൈദ്യസഹായം കൂടുതലും പിന്നെ കിട്ടുന്നുണ്ട് ഇല്ലയെന്നല്ല നമ്മൾ പിന്നെ ഹെൽത്ത് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഡിസ്പൻസി ആയിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മരുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ അഞ്ച് രൂപ ടിക്കറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച ഫ്രീയായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും എക്സറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബി പി എല്ലിന് താഴെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ നേർ പകുതി പൈസ ഒക്കെ കൊടുത്താൽ മതി വലിയ കുഴപ്പമില്ല എന്നാലും ദാരിദ്ര്യം തടസ്സമായിട്ട് എനിക്ക് തോന്നാ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ ഗവൺമെൻറ് ആശുപത്രിയിലല്ലാതെ നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുമ്പോൾ അവർ നമ്മളെ അറുത്ത് കൊല്ലുന്ന പോലെയാണ് പൈസ വാങ്ങുന്നത് പക്ഷെ വൈദ്യസഹായം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇല്ലയെന്നല്ല നല്ല രീതിയിൽ നമ്മളെ നോക്കിയും കണ്ടും നല്ല ഒരു ഗവൺമെൻറ് ആശുപത്രിയിലെന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റാശുപത്രീൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വൃത്തിയും കാര്യങ്ങളും ഫുഡും എക്കെയുണ്ട് എല്ലാ സഹകരണവും സൗകര്യവും എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ കിട്ടുന്നതു പോലെയാണ് എൻ്റെ ഇത് പിന്നെ കിട്ടാത്തത് ഈ കൂടുതലീ പ്രൈവറ്റ് ആശുപത്രികൾ എന്തിനാ അനുമതി കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഇത്കേട്ടോ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ലഭിക്കുന്നുണ്ട് ഗ്രാമപ്രദേശത്തായാലും നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് മെഡിക്കൽ കോളേജുണ്ട് വലിയ ഒരസുഖം വരികയാണെങ്കിലോ ഒരോപറേഷൻ വരികയാണെങ്കിലോ നമുക്ക് നമ്മുടെ അടുത്തു തന്നെ മെഡിക്കൽ കോളേജുണ്ട് കുഴപ്പമില്ല